പ്രധാനമായും ബൈക്ക് ഓടിക്കുമ്പോള് നമ്മള് ശ്രദ്ധിക്കുന്നത് ബൈക്കിനെപ്പറ്റി തന്നെയായിരിക്കും ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മള് നോക്കിയിരിക്കണം അതൊന്ന് സർവീസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടോ സി സി അടച്ചിട്ടുണ്ടോ പിന്നെ ലൈറ്റുകള് വണ്ടിയുടെ എല്ലാ ലൈറ്റുകളും വർക്കിങ്ങാണോയെന്ന കാര്യങ്ങളെല്ലാം നമ്മള് നോക്കിയിരിക്കണം പിന്നെ എന്താണ് അതിന്റെ എവിടെയെങ്കിലുമൊക്കെ ലീക്കുണ്ടോ കാര്യങ്ങളെല്ലാം നമ്മള് നോക്കിയിരിക്കണം ടയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ നോക്കിയിരിക്കണം പിന്നെ നമുക്കായിട്ട് എടുക്കുന്ന സുരക്ഷാ മുൻകരുതലുകളെന്ന് പറയുന്നത് ഹെൽമെറ്റ് എന്തായാലും കരുതണം ലോങ്ങ് ട്രിപ്പും അതിപ്പോള് എവിടെ പോയാലും നമ്മള് ഇവിടെനിന്ന് നമ്മുടെ വീട്ടില് നിന്നൊരു ജംഗ്ഷൻ്റെ അപ്പുറം വരെ പോകുകയാണെങ്കില് പോലും നമ്മളെപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കണം പിന്നെ ട്രാഫിക് റൂൾസ് നമ്മള് പാലിച്ചിരിക്കണം അതുപോലെ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ നമ്മള് കരുതിയിരിക്കണം ഇപ്പോള് ഭയങ്കരം തണുപ്പുള്ള ഏരിയയൊക്കെയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോള് നമ്മള് പോകുന്ന റൂട്ടില് ഇപ്പോള് എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടാകും അപ്പോള് അതില് നിന്നൊക്കെ നമുക്ക് പൊടിയടിക്കാതിരിക്കാനും മറ്റ് അസുഖങ്ങളും കാര്യങ്ങളുമൊന്നും വരാതിരിക്കാനും നമ്മുടെ കയ്യിലൊരു ജാക്കറ്റും പിന്നെ അതുപോലെ തന്നെ മാസ്കോ എന്തെങ്കിലുമൊക്കെ നമ്മള് കരുതിയിരിക്കണം പിന്നെ കൂടുതലും ഹെൽമെറ്റ് നമ്മള് ശ്രദ്ധിച്ചിരിക്കണം ഗ്ലാസുള്ള ഹെൽമെറ്റുകളൊക്കെ ധരിക്കണം ഗ്ലാസൊന്നുമില്ലാത്ത ഹെൽമെറ്റൊക്കെയാണെങ്കില് അതിന്റേതായ ഇതനുസരിച്ച് ഗ്ലാസ്സൊക്കെയിട്ട് അതിൻ്റേതായ രീതിക്ക് പോകണം പിന്നെ അത്യാവശ്യ രേഖകള് നമ്മുടെ കയ്യില് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകണം വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും കയ്യിലുണ്ടായിരിക്കണം അതുപോലെ എന്താണ് ആധാർ കാർഡ് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ കയ്യിലിരിക്കേണ്ട കാര്യങ്ങള് ലൈസൻസും ആധാർ കാർഡും നിര്ബന്ധമാണ് കാരണം നമ്മള് ഓൾറെഡി നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കില്പ്പോലും അവര് നമ്മുടെ പ്രൂഫ് ചോദിക്കുകയാണെങ്കില് നമുക്ക് കാണിക്കാനായിട്ട് ഒന്നുമില്ലെങ്കില് ഈ വോട്ടേഴ്സ് ഐ ഡിയോ നമ്മുടെ ആധാർ കാർഡോ വേണം ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലെങ്കില് നമ്മുടെ ഫോട്ടോയെങ്കിലും കോപ്പിയോ അല്ലെങ്കില് നമ്മുടെ ആധാരിന്റെ ഫോട്ടോ എങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് എന്നുവെച്ചാല് നമ്മള് ലോങ്ങ് ട്രിപ്പാണ് പോകുന്നതെങ്കില് നമ്മുടെ ഇവിടത്തെ ട്രാഫിക് റൂൾസ് ട്രാഫിക് റൂൾസ് നമ്മള് എന്തായാലും പാലിച്ചിരിക്കണം അതുപോലെ തന്നെ ചെക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാലും പെടാതിരിക്കാനായിട്ട് ഇൻഷുറൻസിൻ്റെ പേപ്പറും വണ്ടിയുടെ പേപ്പര് കാര്യങ്ങളെല്ലാം നമ്മള് ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ എന്താണ് പറയുക ഇപ്പോള് കൂടെ ഒരാളുണ്ടെങ്കില് അയാൾക്ക് അതിന്റേതായ രീതിയില് നമ്മള് സേഫ്റ്റിക്ക് തന്നെ അയാളെ കൊണ്ടുപോകണം പിന്നെ ഈ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കില് ഇപ്പോള് ഈ മൈഗ്രൈയിൻ പിന്നെ ഉറക്കം നില്ക്കുമ്പോള് അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളവരാണെങ്കില് അതിനനുസരിച്ചുള്ള മെഡിസിൻ കഴിക്കണം പിന്നെ ലോങ്ങ് റൈഡ് പോകുന്നവരാണെങ്കില് ഈ ശർദ്ദിയോ അങ്ങനെയെന്തെങ്കിലുമൊക്കെ വരുന്നവരുണ്ടെങ്കില് അതിൻ്റേതായ മെഡിസിൻസും കാര്യങ്ങളും നമ്മള് അതിനുസരിച്ച് കൈയില് കരുതിയിരിക്കണം അതുപോലെ തന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മള് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കണം പിന്നെ കൂടുതല് നൈറ്റ് റൈഡ് ഒഴിവാക്കണം മഴയുള്ള സമയത്തൊക്കെയാണെങ്കില് എങ്ങനെയാണ് റോഡൊക്കെ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോള് അതിനനുസരിച്ചുള്ള രീതിക്ക് തന്നെ നമ്മള് അതിൻറേതായ പ്രികോഷൻസ് എടുത്തിരിക്കണം പിന്നെയെന്താണ് നമ്മള് പോകുന്ന റൂട്ട് നമ്മള് നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചിരിക്കണം ഷോർട്ട്കട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കില് അതിന് അതിൻറേതായ രീതിയൊക്കെ നോക്കിയിട്ട് ഷോർട്ട്കട്ടാണ് വേഗമെത്തുകയെന്നൊക്കെ പറഞ്ഞ് വേറെ വഴിയില് കൂടി പോയിക്കഴിഞ്ഞാല് അതിൻറേതായ പ്രിക്കോഷൻസും നമ്മള് അനുഭവിക്കേണ്ടി വരും അതായത് അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളുമുണ്ടാകും നമ്മളറിയാത്ത സ്ഥലത്താണെങ്കില് നമ്മള് കൂടുതലും ഷോർട്ട്കട്ട് നമ്മള് എടുക്കാതിരിക്കുക ഏത് വഴിയാണ് എങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല റൂട്ടും കാര്യങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കിവെച്ചിരിക്കണം പിന്നെ അത്യാവശ്യത്തിന് വേണ്ട മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ പിന്നെ വാട്ടര് അത്യാവശ്യത്തിന് നമ്മള് കയ്യില് കരുതിയിരിക്കണം എല്ലായിടത്തും കടയുണ്ടാകണമെന്നില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലായിടത്തും എല്ലാ രീതിക്കും നല്ല ഫുഡും കാര്യങ്ങളുമൊക്കെ കിട്ടണമെന്നില്ല പിന്നെ അത്യാവശ്യത്തിനായ ബിസ്ക്കറ്റോ അങ്ങനെ സ്നാക്സ് എന്തെങ്കിലും കൈയില് കരുതിയിരിക്കണം ഏറ്റവും കൂടുതല് നമ്മള് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ കാര്യങ്ങളും പിന്നെ നമുക്കെന്തെങ്കിലും വയ്യായ്കയുണ്ടെങ്കില് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും പിന്നെ നമ്മള് കൂടെ പോകുന്നയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മള് എന്തായാലും അറിഞ്ഞിരിക്കണം അയാളുടെ പ്രൂഫും കാര്യങ്ങളുമൊക്കെ കയ്യിലുണ്ടോയെന്ന് അറിഞ്ഞിട്ട് വേണം ഒരു യാത്ര പ്ലാൻ ചെയ്യാന്